കുട്ടികൾ സൃഷ്ടിക്കുന്ന ഡ്രോയിങ്ങ് പെയിൻടിങ്ങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാ സൃഷ്ടികളെയാണ് ചൈൽഡാർട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് അ ഫാൻസിക്സ് ഫ്രാൻ സിസക്ക് എന്ന വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ചൈൽഡാർട്ട് എന്നു പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു കുട്ടി വളർന്നുവരുമ്പോൾ കുട്ടിയുടെ ബുദ്ധി വികസിക്കുമ്പോൾ അവരുടെ കലാപരമായ കഴിവ് പല ഘട്ടങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത് അതിനൊരു മൂന്നു നാല് ഘട്ടമായിട്ട് നിർ ഹെർമൻ സ്പെൻസറെന്നു പറയുന്ന വ്യക്തി പരിണാമ സിദ്ധാന്തത്തിൻറെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഒരു നാല് രീതിയിൽ ഈ കുട്ടികളുടെ ബുദ്ധി വികാസത്തെ തെ തരം തിരിച്ചിട്ടുണ്ട് അതിലാദ്യത്തേതെന്നു പറയുന്നത് സ് സ്ക്രൈബ്ലിങ് എന്നുപറയുന്നതാണ് ചെറിയ കുട്ടികൾ ഒരു ആദ്യത്തെ അവരുടെ ജന്മദിനം കഴിയുമ്പോൾ മുതൽ ക്രയോൺ പോലെയുള്ള എടുത്തിട്ട് ചെറിയ രീതിയിൽ വരയ്ക്കാൻ തുടങ്ങുന്ന ആദ്യ അവരത് ക്രയോണെടുത്തു കഴിഞ്ഞ് ഓരോ കുത്തുകൾ ഇടുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വരകൾ വരയ്ക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നീട് പതിയെ പതിയെ മുകളിലേക്കും താഴോട്ട് പിന്നെ വൃത്താകൃതിയിൽ എല്ലാം വരച്ച് തുടങ്ങുന്നുണ്ട് അത് ക വരച്ച് കഴിയുമ്പോൾ അവരത് ചെറിയ കാര്യമാണ് ചെയ്തത് എങ്കിലും കുട്ടികൾക്കത് അവർ ചെയ്തതെന്തോ വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട് അവർ വരച്ച ആ വരകളും നാരെങ്ലാ പേപ്പറിൽ ചുമരിലവർ വരച്ച് വെയ്ക്കുന്ന ആ വരകളും കുത്തുകളും നിറങ്ങളൊക്കെ കാണുമ്പോൾ അവരെന്തോ വലിയ കാര്യം ചെയ്ത പോലെയുള്ള സന്തോഷം കുട്ടികൾക്ക് ലഭിക്കുന്നതായിട്ട് തോന്നാറുണ്ട് മാത്രമല്ല പേപ്പറിൽ ഒരു പേപ്പറിൽ ചിത്രം വരച്ചിരുന്നാലും അത് ശ് ശരിക്കും അവർക്ക് ആ പേപ്പറിൻ്റെ വശങ്ങൾ പോലും അവരത് ശ്രദ്ധിക്കുന്നില്ല അത് പേപ്പറിൻ്റെ അരി അരികുകളും വക്കുകളും ഒന്നും നോക്കാതെ അവർ അവർക്ക് തോന്നിയതു പോലെ അവർ കുത്തിവരയ്ക്കുകയാണ് ചെയ്യുന്നത് അതു ചിലപ്പോൾ ഏതെങ്കിലും പേജിലെ വരികളാണെങ്കിൽ പോലും അത് പേജിൻ്റെ പരിധിയും കടന്നു പോകാറുണ്ട് ചിലപ്പോൾ ചിത്രം വരച്ച് വരച്ച് അവർ ചിലപ്പോൾ കുറച്ചു കഴിയുമ്പം അവരുടെ കൈകളിലും മുഖത്തും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽപ്പോലും ഈ ചായം പുരണ്ട് കാണാറുണ്ട് പിന്നീട് ഒരു രണ്ടാ രണ്ടു വയസ്സൊക്കെ ആകുമ്പോൾ പതിയെ എഴുത്ത് എഴുതി തുടങ്ങുന്നുണ്ട് പല രൂപങ്ങൾ സ്കെച്ചുകൾ കൊണ്ടോ അല്ലെങ്കിലീ ക്രയോൺസ് കൊണ്ടോ ചെറിയ രീതിയിലുള്ള രൂപങ്ങളൊക്കെ വരച്ചു തുടങ്ങുന്നുണ്ട് അതിൽ ചിലപ്പം വൃത്ത വൃത്തങ്ങളിലുണ്ടായ ഇരിക്കും അല്ലെങ്കിൽ മറ്റ് കുരിശ് അങ്ങനെയുള്ള പലതരത്തിലുള്ള രൂപങ്ങൾ അവർക്ക് തോന്നിയ പോലെ അവർ കുത്തിവരക്കാറുണ്ട് പല രീതിയിലുള്ള പാറ്റേണുകൾ വരയ്ക്കാൻ അവർ ശ്രമിക്കാറുണ്ട് പിന്നെ അതിൽ മൂന്നാങ്കട്ടം എന്നുപറയുന്നത് പ്രീ സിമ്പോളിസം എന്നുപറഞ്ഞിട്ടുള്ളതാണ് ഏകദേശം ഒരു മൂന്നു വയസ്സു മുതൽ കുട്ടി ഇങ്ങനെ സിർക്കിളും വരികളുമെല്ലാം ചേർത്തുവെച്ചിട്ട് ചെറിയ രീതിയിലുള്ള രൂപങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നുണ്ട് ആദ്യം ചിലപ്പോൾ വരയ്ക്കുന്ന ചിത്രത്തിന് ചെ മനുഷ്യൻ്റെ രൂപങ്ങൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിനു ശരീരം ഇല്ലാത്ത രൂപങ്ങളുണ്ടാകും ചിലപ്പം തല ഉണ്ടാകില്ല ശരീരം ഇല്ലാത്ത ആൾക്കാരുടെ രൂപങ്ങളായിരിക്കും ചിലപ്പം തലയിൽ നിന്ന് ശരീരം ഇല്ലാതെ തലയിൽ നിന്ന് നേരിട്ടായിരിക്കും കൈ കാലുകൾ വരക്കാറുള്ളത് ചില കണ്ണുകൾ ചിലപ്പം വലിയ നല്ല വലുതായിട്ട് വലുപ്പത്തിൽ വരച്ചിട്ടുണ്ടായിരിക്കാം ഈ മു മുഖം വരച്ചാൽ തന്നെ മുഖത്തിൽ മുഖത്തിൻ്റെ അതേ വലിപ്പത്തിൽത്തന്നെ എകദേശം കണ്ണുകൾ ആ മുഖത്തിൻ്റെ ഭൂരിഭാഗവും നിറച്ച് വെച്ചിട്ടുണ്ടാകും ചിലപ്പം കൈ കാലുകൾ ആ ചിത്രത്തിന് ഉണ്ടാകുകയേ ഇല്ല ചിലപ്പോൾ അവരെന്താണ് വരച്ചതെന്നു നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാകില്ല അവർ വരച്ചതെന്താണെന്ന് ചിലപ്പം അവർക്കും മനസ്സിലാകുന്നുണ്ടാകില്ല ഇങ്ങനെ അവർക്കു തോന്നിയപോലെ അവർ പേപ്പറിൽ കുത്തി വരയ്ക്കുന്നുണ്ടാകും പിന്നീട് ആകാശ ആകാശത്തിൽ പൊങ്ങി കിടക്കുന്ന രീതിയിൽ പല തരത്തിലുള്ള രൂപങ്ങൾ അവർ വരക്കുന്നുണ്ട് ശരിക്കും ഉള്ളൊരു രൂപം അവരുടെ മനസ്സിലുണ്ടാകില്ല അവരുടെ അവർക്ക് തോന്നിയപോലെ എന്തൊക്കെയോ കുത്തി വരക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പൂ പൂച്ചയുടെ അടക്കം ചിത്രം പതുക്കെ അവർ വരച്ചു തുടങ്ങുന്നുണ്ടായിരിക്കും ഏകദേശമൊരു അഞ്ചു വയസ്സൊക്കെ ആകുമ്പഴത്തേക്ക് കുറച്ചൊക്കെ വരയ്ക്കുക കുറച്ചും കൂടി നന്നായിട്ട് വരയ്ക്കാൻ വരച്ചു തുടങ്ങുന്നതായിട്ട് കാണാറുണ്ട്